ആ സാറെ ഞാൻ പാൻ കാര്ഡിനായിട്ട് ഓണ്ലൈനിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എനിക്കതിനെക്കുറിച്ച് ഒരൂ റിപ്ലൈയും കിട്ടിയിട്ടില്ല കാരണം ഞാന് രണ്ട് മാസത്തോളമായി അപേക്ഷിച്ചിട്ട് എനിക്കിപ്പോൾ പൈസ ഇടണമെങ്കിലൊക്കെ എനിക്ക് പാന് കാര്ഡ് ആവിശ്യമാ അതുകൂടാതെ അതുതന്നെയൂമല്ല എനിക്കിപ്പോൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് പാസ്സ്പോട്ടൊക്കെയെടൂക്കണം പാസ്പോട്ടൊക്കെ എടുക്കുന്നേരം പാന് കാഡ് ചോദിക്കുന്നുണ്ട് പിന്നെ മകന് വിദേശത്താണ് അപ്പോൾ മകന്റെ ഈ പൈസയൊക്കെ വരുന്നതിനും അങ്ങനെ എടുക്കുന്നതിന്നുമൊക്കെ എനിക്ക് പാന് കാഡ് അത്യാവശ്യമായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതിന്റെ അവസ്ഥയെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണമെന്നുവെച്ചാൽ ഇനി എന്തെങ്കിലും പേപ്പറുകളിനി തയ്യാറാക്കാനുണ്ടോ അതല്ലെങ്കിൽ അതിലിനി മിസ്റ്റേക്കുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എനിക്കൊന്ന് പറയുക പറയുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം എനിക്കെന്തായാലും അത്യാവശ്യവാണ് സാറെ പാന് കാഡ്